നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യേണ്ട സതങ്ങളിലാണ് ഇപ്പം റെസ്റ്റോറന്റ്കൾ ഒക്കെയായും മറ്റ് ബിള്ഡിങ്ങ്കളായിട്ടുമൊക്കെ വന്നേക്കുന്നത് നമ്മൾ പണ്ട് കാലങ്ങളില് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെല്ല് നെല്ലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും നമ്മുടെ സ്വന്തം വീട് വീട്ടിലും വീട്ടുകളിലാണ് നമ്മൾ പച്ചക്കറികളെല്ലാം വളര്ത്തിക്കൊണ്ടിരുന്ന നമ്മൾ വളര്ത്തിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പം മറ്റുള്ള രാജ്യം മറ്റുള്ള രാജ്യ ങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഭക്ഷണ രീതിയ്ക്ക് വേണ്ടി പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ നമ്മൾക്ക് വിശ്വസിച്ച് കഴിയ്ക്കാൻ പോലും സാധിക്കുകയില്ല പലതരം മാരകവിഷങ്ങള് അതിനകത്ത് അവർ അടിച്ചാണ് പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും എല്ലാം നമുക്ക് വിശ്വസിച്ച് കഴിയ്ക്കാൻ പറ്റും നമ്മളെ രോഗങ്ങളിൽനിന്നും നമ്മളെ രക്ഷ മേടി